വി എം സ്കൂളിലെ പ്രിൻസിപ്പാൾ അല്ലേ ഇത് ആ എനിക്ക് രണ്ട് അഡ്മിഷൻ വേണമായിരുന്നു എൽ കെ ജിയിലേക്കും രണ്ടാം ക്ലാസ്സിലേക്കും ആയിട്ട് ഉള്ള ആ കുട്ടിക്ക് നാല് വയസ്സ്

സ്ഥലം പെരിയയിൽ സ്കൂൾ ബസ്സ് വേറെ ഉണ്ടാവുന്നില്ലേ

ആ ആ ആ എത്ര ആയിരുന്നു ഇപ്പോൾ അതെയാ അഡ്മിഷൻ ഫീസ് ആയിട്ട് ആ അതിന് എത്ര വരും ആ ഓ ഫീസ് ഒരു വർഷത്തേക്ക് ഉള്ള ഫീസ് ആ ആ ഒരു വർഷത്തേക്കാ

ആ ആ പെട്ടെന്ന് അടച്ചാൽ കിട്ടുമായിരിക്കും അല്ലേ

അതെയാ അത് എപ്പോൾ തുടങ്ങും അതെയാ ആ ആ ആ അപ്പോൾ നിങ്ങൾ ആ ആ ആ ആ അപ്പോൾ ഓക്കെ സാർ ആ നല്ല കാര്യം ആയി ആയി ആയി ആ ആയി ആയി സാർ വൺ ഇയറാ ആയി ആയി ഓക്കേ ഓക്കേ